ഇപ്പോഴെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ട് എല്ലാ ഗവൺമെന്റ് സ്കൂൾസിലാണെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഫുഡ്ഡ് എല്ലാം സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് വൺ ടു ടെൻ വരെ പഠിക്കുന്ന ഏതൊരു കുട്ടിക്കും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത് എല്ലാവരെയും ചികിത്സിക്കുക അവർക്ക് വേണ്ട മരുന്നും എല്ലാം ലഭിക്കുന്നുണ്ട് മൊത്തത്തിൽ കുഴപ്പമില്ലാണ്ട് പോകുന്നു എന്നാലും ഇതിലും കുറച്ചുകൂടി മാറ്റങ്ങൾ ഒക്കെ വരുത്താനുണ്ട് ഇപ്പോൾ ഒ പി ടിക്കറ്റ് എടുക്കേണ്ടെങ്കിൽത്തന്നെ ഒരു ആ ഒരു കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കും പിന്നെ അറുപത് വയസ്സിനു മേലെയുള്ളവർക്കും ഒ പി ടിക്കറ്റ് എടുക്കാൻ നേരത്ത് ക്യൂ നിൽക്കണമെന്നുള്ള ആവശ്യം ഒന്നും ഹോസ്പിറ്റലിലില്ല എന്നാൽ ബാക്കിയുള്ളവർക്ക് ക്യൂ നിന്ന് അങ്ങനെയൊക്കെയാണ് ഒ പി ടിക്കറ്റ് എടുക്കാനൊക്കെ അവർ അവസരം നൽകുന്നത് എന്നാൽ ഇതിൽ നിന്ന് എല്ലാവർക്കും തുല്യ പരിഗണന നൽകേണ്ട ഒരു കാര്യമാണിത് അതുപോലെത്തന്നെ ഒരു ഒരു ഏതൊരാൾക്കും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൺ പെൺ വേർതിരിവ് എല്ലായിടത്തും വരുന്നുണ്ട് ഇപ്പം ഒരു ജോബ് ചെയ്യുന്ന ഒരു ആണിന് കിട്ടുന്ന ശമ്പളവും ആ സ്ഥാനത്തുതന്നെ അതേ ജോലി ഒരു പെണ്ണ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് കിട്ടുന്ന സാലറിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് അങ്ങനെ ഒരു ആൺ പെൺ വേർതിരിവ് ഉള്ള ലോകത്താണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത് ആ ഒരു മേറ്ററാണ് നമുക്കെപ്പോഴും മാറേണ്ടത് അപ്പോൾ ഈ സർക്കാർ ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ആൺ പെൺ വേർതിരിവില്ലാണ്ട് എല്ലാവരെയും തുല്യമായി പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് നമുക്കിവിടെ പറയാനുള്ളത്